നമുക്ക് എന്നും ചിത്രം വരയ്ക്കാൻ തോന്നാറില്ല കാരണം നമ്മളെ മൂഡും മൂഡ് അനുസരിച്ചിരിക്കും നമ്മൾ സാഡായിട്ട് ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് പ്രഷറൊക്കെ ഉണ്ടാകുന്ന സമയത്താണ് നമ്മൾ ചിത്രം വരയ്ക്കാനും ഇതാക്കാറില്ല ആ സമയങ്ങളിൽ എന്താ പറയുക അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ മൂഡിന് അനുസരിച്ചാണ് ചിത്രം വരയ്ക്കുക പിന്നെ നമുക്ക് ചിത്രം വരയ്ക്കാൻ ഒരു പ്രജോദനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു വർക്ക് ഏറ്റെടുത്താൽ അത് കമ്പ്ലീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് നമ്മൾ ഒരാളുടെ വർക്ക് ഏറ്റെടുക്കുമ്പം നമ്മൾ അത് കമ്പ്ലീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കും അങ്ങനെ നമുക്ക് അതിൽ ഒരു ഏർണിങ്ങ്സ് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് അതിലൊരു വരയ്ക്കാൻ ഒരു ഇൻ്ററസ്റ്റ് ഉണ്ടാവും പിന്നെ നമ്മൾ ഇപ്പോൾ നമ്മുടെ ജീവിതശൈലിയിൽ നമ്മൾ ദിനചര്യയിൽ നമ്മൾ ചിത്രം വരയ്ക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ സമയം കിട്ടുന്നത് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒഴിവു സമയങ്ങളാണ് നോക്കിയെടുക്കാറ് അല്ലെങ്കിൽ സമയം കണ്ടെത്താറുണ്ട് കാരണം ഇങ്ങനെ വർക്ക് ഏറ്റെടുക്കുമ്പം സമയം കണ്ടെത്താറുണ്ട് അല്ലെങ്കിലും നമ്മൾ ഒഴിവ് സമയങ്ങളാണ് എടുക്കുക ഇപ്പം ഫുഡ് എല്ലാം കഴിച്ച് റസ്റ്റ് എടുക്കുന്ന സമയങ്ങൾ അങ്ങനെ പിന്നെ രാത്രി സമയങ്ങളിൽ പിന്നെ അതുപോലുള്ള സമയങ്ങളിലാണ് നമ്മൾ ചിത്രം വരയ്ക്കാൻ സമയം കണ്ടെത്തുന്നത്